ഞാൻ സ്റ്റേജിൽ പാടാൻ കയറുമ്പോഴത്തേക്ക് എനിക്കങ്ങനെ വലിയ പരിഭ്രമമോ പേടിയോ ഒന്നും തോന്നിയിട്ടില്ല കുഞ്ഞുനാളിൽ പാടുമ്പോഴാണേലും എനിക്കങ്ങനെ പേടി തോന്നാറില്ല സ്റ്റേജിൽ കയറി സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പാട്ടുപാടാനായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് നേരം ഞാൻ ശ്വാസം വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വിട്ടതിനുശേഷം പാട്ടുപാടാൻ തുടങ്ങും ഇപ്പോൾ പാടി കഴിയുമ്പോഴ്ത്തേക്കും അങ്ങനെ എനിക്ക് പേടിയൊന്നും തോന്നാറില്ല പിന്നെ ഞാൻ പാടുമ്പോഴ്ത്തേക്കും കൂടുതലും നേരെ തന്നെ നോക്കി നിന്നുകൊണ്ടാണ് പാടാറുള്ളത് ആരുടെയും മുഖത്തേക്ക് നോക്കാറില്ല അതുകൊണ്ടു തന്നെ എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയിട്ടില്ല പാടിക്കഴിഞ്ഞു വലിയൊരാശ്വാസം എനിക്ക് തോന്നാറുണ്ട് കാരണം പേ പേടിച്ച് വിക്കി വിക്കി പാടുന്ന ഒരു സ്വഭാവം എനിക്കില്ല പാടുമ്പോൾ നന്നായിട്ട് പാടും പാടി അത് ഇപ്പം സ്റ്റേജിലാണെങ്കിൽ ഇന്നവർ ഇരിക്കുന്നു എന്ന ഒരു തോന്നലോ ഒരു പരിഭ്രമമോ എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ നന്നായി പാടി സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും എല്ലാവരുടെയും അപ്പോഴത്തേക്കായിരിക്കും സദസ്സിൻ്റെ മുമ്പിലേക്ക് ഞാൻ നോക്കുന്നത് തന്നെ ഞാൻ നേരെ നോക്കിയേ പാടാറുള്ളൂ കാരണം തന്നെ ആരുടെയും മുഖത്തേക്ക് നോക്കാറില്ല അതുകൊണ്ടു തന്നെ എനിക്ക് പേടിയും ഉണ്ടാകാറുമില്ല